ഇന്നത്തെക്കാലത്ത് കളിക്കുന്ന കളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അങ്ങനെ കുട്ടികളാരും അങ്ങനെ പുറത്തിറങ്ങുന്നില്ല കാരണം എന്താ വച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഫോണിലാണ് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ കയ്യിൽ വരെ ഫോണാണ് ഉള്ളത് അപ്പം എല്ലാവരും പബ്ജി ഫ്രീഫയറ് അങ്ങനത്തെ കളികളാണ് കൂടുതലും കളിക്കുന്നത് അപ്പം കുട്ടികളുടെ മൈൻ്റ് തന്നെ മാറിപ്പോകുന്ന ഒരവസ്ഥയാണ് ഇപ്പം ഉള്ളത് പണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫോണിൽ ഫോണ് എന്നു പറഞ്ഞ സംഭവം ഇല്ലാണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ആ കാലത്ത് പക്ഷേ ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോണിൻ്റെ ഉപയോഗം വല്ലാണ്ട് കൂടുതലായതുകൊണ്ട് എന്താ പറയുക ഇപ്പം പുറത്തേക്കുള്ള കളികൾ അതായത് ഫുട്ബോള് കളി ക്രിക്കറ്റ് കളി അങ്ങനെ എല്ലാവരുമായിട്ടൊരു നമ്മൾ കൂട്ടുകാരൊത്തായിട്ടൊരു കളിക്കുന്നൊരു കളികളെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇല്ല പണ്ട് ഞാനൊക്കെ സ്ക്കൂളിൽ പഠിക്കുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ക് കളിക്കും പിന്നേ ഗോട്ടിയെന്നു പറഞ്ഞ ഗോട്ടി കളിക്കും അങ്ങനത്തെ കളികളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെക്കാലത്ത് ഒരു കളിയുമില്ല ഇപ്പോഴതൊന്നും കാണാനേയില്ല പിള്ളേരൊന്നും അങ്ങനെ കളിക്കുന്നതുപോലും കാണാനില്ല അക്ക് കളി ഗോട്ടികളി ഇങ്ങനത്തെ കളികളൊന്നും കളിക്കുന്നത് തന്നെ കാണുന്നില്ല അങ്ങനത്തെ കളിയൊക്കെ കളിക്കുന്ന കാണണമെങ്കിൽ നമ്മൾ പണ്ടത്തെ കാലത്തേക്ക് തിരിച്ചു പോകേണ്ടൊരു അവസ്ഥയാണുള്ളത് ഇപ്പൊഴത്തെ പിള്ളേരെന്നു പറഞ്ഞു കഴിഞ്ഞാൽ കളിക്കുന്നത് കൂടുതലും ഫോണിൽത്തന്നെയാണ് പിന്നെ ചിലവരുമാത്രം എന്തു ചെയ്യും ഫോണൊന്നും അങ്ങനെ അഡിക്ടല്ലാത്ത ആൾക്കാർ മാത്രമാണ് പിന്നെ പുറമെ പോയിട്ട് ഫുട്ബോള് കളിക്കുന്നതും അങ്ങനത്തെ കളികളൊക്കെ കളിക്കുന്നത് അപ്പോൾ അവരുടെ ആരോഗ്യവും നല്ലതാണ് പക്ഷേ ഈ ഇപ്പോൾ ഫോണിൽ കളിക്കുന്ന പിള്ളേരുടെ ആരോഗ്യമൊക്കെ വളരെ മോശമായിട്ടാണ് പോകുന്നത് ഇപ്പം കളിക്കുന്ന കളികൾ കൂടുതലും ഫോണിലാണ് കളിക്കുന്നത് ഇങ്ങനെ പബ്ജി ഫ്രീഫയർ അങ്ങനത്തെ കളികൾ കളിക്കുന്നുണ്ട് പിന്നെ ഫുട്ബോളുണ്ട് അങ്ങനത്തെ കളികളൊക്കെയുണ്ട് പിന്നെ പണ്ടുള്ള കളിച്ചുകൊണ്ടിരുന്ന സാറ്റുകളിയൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഇപ്പം ആരും കളിക്കുന്നതു തന്നെ ഇല്ല